പല കാലാവസ്ഥകളിലും വളരുന്ന ചെടികൾക്ക് പല വ്യത്യസ്തമായ രീതിയിലാണ് വളവും സംരക്ഷണും കൊടുക്കേണ്ടത് കാപ്പി ചെടിക്കാണെങ്കില് മഴക്കാലമാവുമ്പോഴ് അതിൻ്റെ ഏ കമ്പിയൊ കമ്പിതേരൊക്കെ അടർത്തി അതിനെ ചാണാപ്പൊടി ഇട്ടു കൊടുക്കണം നല്ലോണം മഴ പെയ്താൽ മാത്രം നമ്മ്ക്ക് അതിനെ വള ഇട്ട് കൊടുക്കേണ്ടതാണ് അതാപോലെ തെങ്ങാണെങ്കില് തെങ്ങിന് മഴക്കാലാവ്മ്പം തെങ്ങിൻെറ ഉള്ള് തൊരന്നിട്ട് അതിനെ ചപ്പ് ഇട്ടു കൊടുക്കണം അതാപോലെ ചാണാനിട്ട് കൊടുക്കണം പിന്നെ മഴയുള്ള സമയത്ത് നമുക്ക് അതിന് കുറച്ച് വളം കൂടി ഇട്ടു കൊടുക്കേണ്ടതാണ് അതേപോലെ കുരുമുളക് കൃഷി ചെയ്യാനാണെങ്കില് അതിന് നമ്മള് മഴക്കാലത്തു വേണം ഇംഗ്ലീഷ് വളം ഇട്ടു കൊടുക്കാൻ അതേപോലെ ചാണാപ്പൊടിയും ഇട്ടു കൊടുക്കേണ്ടതാണ് അതേപോലെ കവുങ്ങിനായാലും നമ്മുക്ക് അതേപോലെ വളം തോട് തൊരന്നിട്ട് അയ്യിന് ചാണാപ്പൊടിയും ഇംഗ്ലീഷ് വളം ഇട്ടു കൊടുക്കേണ്ടതാണ് അത്പോലെ ചെടികളാണെങ്കിലും മഴക്കാലത്ത് ഒരുപാട് വെള്ളന്ന് നിക്കുന്ന സ്ഥലത്ത് ചെടികൾ വയ്ക്കരുത് അത് ചീഞ്ഞ് പോവത്തേ ഉള്ളു അത് കൊണ്ട് ഒരുപാട് ഈർപ്പള്ള ഉള്ള സ്ഥലത്ത് ചെടികൾ വയ്ക്കരുത് പച്ചക്കറിയായാലും ജൂൺ ജൂൺ മാസത്തില് നമ്മള് ഉണ്ടാക്കിയാൽ അത് ഉണ്ടാവുന്നതല്ല കാരണന്ന് വച്ചാൽ മഴയുടെ കൂടുതല് കൊണ്ട് അത് ചീഞ്ഞ് പോണേണ് പലപ്പോഴും സെപ്റ്റംബറും ഒക്ടോബർ മാസങ്ങളിലാണ് നമ്മള് പയറ് കൃഷി ചെയ്യേണ്ടത് പയറ് ചെയ്യുമ്പം തന്നെ അതിന് നമ്മള് കുറച്ച് പൊടി വളം ഇട്ടു കൊടുക്കുകയും ചെയ്യണം അതിന് ചാണാപ്പൊടി ഇട്ട് കൊടുക്കണം പയറ് വളർന്ന് വലുതാകുതോറും നമ്മുക്ക് അതിനെ കയറ് കെട്ടീട്ട് അതിനെ മേലേക്ക് കേറ്റി കേറ്റി കൊടുക്കേണ്ടതാണ് ആക്കിയാൽ നമുക്ക് പയറ് കൃഷിയെ സംരക്ഷിക്ക അതേപോലെ ഏത് പച്ചക്കറി എടുക്കാണെങ്കിലും നമ്മള് മഴക്കാലത്ത് ചെയ്യാണെങ്കില് നമുക്ക് അത് സുരക്ഷിതമല്ല കാരണെച്ചാൽ അതില് പുഴുവരിക്കുകയും അതിന് കീടനാശികള് ഇണ്ടാവേം ചെയ്യുന്നുണ്ട് അതിനുള്ള മരുന്ന്കള് നമ്മള് എടക്കെടക്ക് അടിച്ച് കൊടുക്കേണ്ടതാണ് ഓരോ കൃഷിക്കും അതിൻ്റെ അതിൻെറതായ വളങ്ങളും അതിൻ്റെതായ രീതിയില് അയ്യിന് സംരക്ഷണം കൊടുക്കേണ്ടതാണ്